ഈ പ്രദേശത്ത് മ മത്സ്യങ്ങൾ കിട്ടാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ കിട്ടാറുണ്ട് കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കടല് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള മത്സ്യങ്ങളും കിട്ടാറുണ്ട് മോശമായ രീതിയിലുള്ള മത്സ്യങ്ങളും കിട്ടാറുണ്ട് കാരണം എന്ന് വെച്ചാല് പല ആൾക്കാരും പല രീതിയിലുള്ള പെരുമാറ്റവും ഇപ്പോൾ മീനുകൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇവർക്ക് മീൻ കിട്ടാണ്ടൊക്കെ വരും അപ്പം ഇവര് എന്ത് ചെയ്യും നമ്മൾ ഇവിടെ തന്നെ നമ്മളുടെ മാർക്കറ്റുകളിൽ പഴയ മത്സ്യങ്ങളൊക്കെ ഫ്രിഡ്ജിലും കാര്യങ്ങളിലുമൊക്കെ സു സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എടുത്ത് തരും ഇപ്പോൾ അതിന് ഇപ്പോൾ എന്താ പറയുക ചീഞ്ഞ മീന് ആയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും തരിക നമ്മൾ അത് നോക്കി എടുത്തിട്ടില്ല എങ്കില് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ എന്നൊക്കെ പറഞ്ഞാൽ മത്തിയും അയലയുമാണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിയായാലും ഇഷ്ടംപോലെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മത്തിയും അയലയുമാണ് പിന്നെ പല രീതിയില് സ്രാവ് കാര്യങ്ങളൊക്കെ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടും വലിയ വലിയ മീനുകൾ ആയത്കൊണ്ട് അതിന് ഭയങ്കര വിലയും റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഏറ്റവും കുറവുള്ളത് എന്ന് പറഞ്ഞാൽ മത്തിയും അയലക്കും തന്നെയാണ്